എനിക്ക് നേരിൽ കാണാൻ താൽപര്യപ്പെടുന്ന സിനിമ താരങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാൻ നസ്രിയ അതുപോലേ ഭാവന പിന്നേ അതുപോലേ മഞ്ജു വാരിയർ ഇവരെയൊക്കെയാണ് എനിക്ക് നേരിൽ കാണാൻ ഇഷ്ടം പിന്നേ അതുപോലേ നടന്മാരാണെങ്കിൽ എനിക്ക് ദുൽഖർ സൽമാൻ അതുപോലേ മമ്മൂട്ടി മോഹൻലാൽ ഫഹദ് ഫാസിൽ അതുപോലേ വിനീത് ശ്രീനിവാസൻ ഇവരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ ആഗ്രഹമുണ്ട് അവരെ കണ്ടാൽ എന്ത് ചോദിക്കുമെന്ന് വെച്ചാൽ പിന്നേ നസ്രിയേ ഒക്കേ കണ്ടാൽ ഞാൻ എങ്ങനെയാണ് ഇത്ര ക്യൂട്ട്നെസ്സ് കീപ് ചെയുന്നേന്ന് ഞാൻ ചോദിക്കും എനിക്ക് അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് നസ്രിയ നസീമിനെ അവരുടെ എക്സ്പ്രഷൻസ് ആണെങ്കിലും അവരുടേ ഒരൂ സംസാരം ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നേ അതുപോലേ ഇപ്പം മമ്മൂട്ടീനെ ഒക്കേ കണ്ടാൽ ചോദിക്കോന്ന് വെച്ചാൽ ചോദിക്കയല്ല എനിക്ക് പറയാനായിരിക്കും കൂടുതൽ ഉണ്ടാവുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മമ്മൂട്ടി മോഹൻലാലിനെ ഒക്കേ അപ്പം അവരോട് ചോദിക്കാന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു ഈ ഒരു പ്രായത്തിലും ഇങ്ങനെ യുവത്വത്തോട് കൂടി നിൽക്കുന്നത് അല്ലെങ്കിൽ യുവത്വത്തോട് കൂടി കാണപ്പെടുന്നത് എന്നു ഞാൻ ചോദിക്കും അവർക്ക് ഇപ്പോൾ വയസാണെങ്കിലും അവരുടേ അവർക്കൊരു പ്രായം ചർമം കണ്ടാൽ പ്രായം തോന്നില്ല എന്ന് പറയുന്നത് പോലേയാണല്ലോ അവർ അപ്പോൾ അത് ചോദിക്കും ഞാൻ